ഇപ്പോൾ വയനാട് ജില്ലയിൽ പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത് എന്നുപറയുമ്പോൾ ദീപാവലിക്കൊക്കെ എന്നുപറയുമ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പിന്നെ ഹോളിലൊക്കെയാവുമ്പോൾ കളറൊക്കെ വാരി എല്ലാർടേം മുഖത്തോട്ടൊക്കെ തേക്കുക അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ വായനാട്ടിലായാലും കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ കൂടുതലും പുറമേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വയനാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് പിന്നെ ഓണം പിന്നെ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ കൈമാറുന്ന അതൊക്കെ വലിയൊരു ആഘോഷമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ആൾക്കാർ കണ്ടുവരുന്നത് ഓണത്തിന് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വയനാട്ടിലോക്കെന്നു പറയുമ്പോൾ നല്ല ആഘോഷമാണ് ഹിന്ദുക്കളാണ് കൂടുതൽ ഈ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണാത്തിനായിക്കഴിഞ്ഞാൽ പുതിയ ഡ്രെസ്സെടുക്കുക എന്താ പറയാ പൂക്കളമിടുക അതൊക്കെ നല്ലോരു ആഘോഷമൊക്കെയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണ വായനാട്ടിലുള്ളവരായാലും പുറമെയുള്ളവരായാലും ഇപ്പോൾ അവരുടെ വിശ്വാസങ്ങളേം പാരമ്പര്യങ്ങളെയൊക്കെ ഉയർത്തികാണിക്കുന്നതിനൊക്കെ വേണ്ടീട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാലും അവരൊക്കെ അത് നല്ല രീതിക്കു തന്നെ ആഘോഷിക്കുകയും അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയുമൊക്കെ ചെയ്യുന്നുണ്ടിപ്പോൾ ഇപ്പോൾ അത് നല്ലൊരു നേട്ടമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് വായനാട്ടിലായാലും എല്ലാ ജില്ലയിലായാലും ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും തന്നെ ഇത് ആഘോഷിക്കുന്നുണ്ട് അത് നല്ലൊരു രീതിതന്നെയാണ്